ഹലോ ഹലോ നയൻറ്റീൻ എയ്റ്റീസ് നൊസ്റ്റേജിക് റെസ്റ്റോറൻറ്റ് എന്തായിരുന്നു മാഡം വേണ്ടത്

അതെ ഉണ്ട് പിടിയും കോഴിയും ഉണ്ട് ഓ ചെയ്യും ചെയ്യും എത്ര എത്ര വേണം അൻപത് പേർക്കുള്ളതാ അ ഓക്കെ ഓക്കെ എവിടെയായിരുന്നു സ്ഥലം എവിടെയായിരുന്നു മാനന്തവാടിയല്ലേ ഡെലിവറി ചെയ്യുമ്പോ നമുക്ക് എന്ത് പറയാ അതിൻറ്റേം കൂടെ ഡെലിവറി ക്യാഷും കൂടെ വരും അ അതിൻ്റെ അതിൻ്റെ കൂടെയുണ്ട് അതായതിപ്പോ നമ്മളിപ്പോ കടയില് വന്ന് വാങ്ങുന്നതും നമ്മള് വണ്ടീകൊണ്ട് തരുന്നതും കുറച്ച് വ്യത്യാസാണല്ലോ അപ്പോ അതിൻ്റൊരു ഡെലിവറി ക്യാഷും കൂടെ വരും പിന്നെ വേറെ എന്തെങ്കിലും വേണോ മാഡം പിന്നെ മന്തി ഉണ്ട് അൽഫാമന്തി ഉണ്ട് പിന്നെ ഫിഷ് ഐറ്റംസ് ഉണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് എല്ലാം ഉണ്ട് ഏകദേശം മാം ഏതായിരുന്നു ബിരിയാണി വേണോ ബിരിയാണിയാണോ വേണ്ടത് എത്രെണ്ണം വേണം ഇരുപത്തഞ്ചെണ്ണാ ഇരുപത്തഞ്ച് പേർക്കല്ലേ അ ഓക്കെ ബിരിയാണിക്ക് നൂറ്റി അയിമ്പത് രൂപാട്ടോ ഒരെണ്ണത്തിന് അ നൂറ്റിഅയിമ്പത് രൂപയാണ് പിടിയും കോഴിയും പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കാരണം അത് നമുക്കിങ്ങനെ വലിയ ഇതായിട്ട് എടുക്കുന്നില്ലല്ലോ അത് അധികം ആർക്കും അങ്ങനെ കഴിക്കില്ല അപ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ആക്കീട്ടെടുക്കാം ബിരിയാണിക്ക് ആ റേറ്റന്നെ വരും ഇപ്പോ ചിക്കനൊക്കെ വില കൂടിയതുകൊണ്ട് ബിരിയാണിക്ക് ആ റേറ്റന്നെ വരും അ എപ്പഴത്ത് എപ്പോഴത്തേക്കായിരുന്നു വേണ്ടത് ഇരുപത്തഞ്ചാം തിയതിക്ക് ആയിക്കോട്ടെ അ ഓക്കെ ഒരു കുറച്ച് പൈസ അഡ്വാൻസായിട്ട് വേണ്ടിവരും ഒരു അയ്യായിരം രൂപ അഡ്വാൻസായിട്ട് വേണ്ടിവരും അ ബാക്കിയൊക്കെ ടോട്ടല് ഒന്ന് കണക്കൂട്ടണം അമ്പത് ബിരിയാണിയല്ലേ അത് ഞാന്ന് ആ ഇരുപത്തഞ്ച്ല്ലേ ഇരുപത്തഞ്ച് ബിരിയാണീം അമ്പത് പേർക്കുള്ള പിടീം അ അത് ഞാനൊന്ന് കണക്ക് കൂട്ടീട്ട് ഞാൻ മാമിന് വാട്സാപ്പെയ്യാം അവിടത്തെ ലൊക്കേഷനൊന്ന് അയച്ചരണം അ ഓക്കെ എന്നാല് ഇരുപത്തഞ്ചാദി രാവില്ലല്ലേ വേണ്ടേ രാവിലെ ഞങ്ങളിത് എപ്പവേണേങ്കി ചെയ്യും നമുക്കങ്ങനത്തെ ഇതൊന്നുല്ലാ മാം പറയുന്ന ടൈമിന് അവിടെ എത്തിച്ചരും അതെ ഓക്കെ ഓക്കെ പതിനൊന്ന് മണിയാകുമ്പഴേക്കും എത്തിച്ചരാം ഓക്കെ ഓക്കെ എന്നാല് ഈ അ എങ്ങനാണ് പേയിമെൻറ്റ് ഞാനിപ്പോൾ വാട്സാപ്പില് ഒരു നമ്പറയക്കാം ആ നംബർലേക്ക് ചെയ്താൽ മതി ബാക്കി ബാക്കി അവിടെ ചെന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താൽ മതി വരുന്ന ആൾടടുത്ത് കൊടുത്താമതി ബാക്കി പൈസ ഓക്കെ ഓക്കെ മാം ഓക്കെ താങ്ക്യൂ